എല്ലാ ദിവസവും വെള്ളപ്പൊക്കം എല്ലാ ദിവസവും എന്നല്ല സീസണാകുമ്പോള് ഭയങ്കര വെള്ളപ്പൊക്കവും മണ്ണൊലിച്ചുപോവുകയൊക്കെയാണ് അതു കഴിയുമ്പോള് ഇപ്പോള് ഇതു മഴയൊക്കെ എവിടെ പോയന്നറിയത്തില്ല പിന്നെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഭയങ്കര ചൂട് അതികഠിനമായ ചൂട് പണ്ടൊക്കെയൊരു മഴ കഴിഞ്ഞാല് കുറേ നാളത്തേനു നല്ല സുഖമായ കാലാവസ്ഥയായിരുന്നു ഇതിപ്പോള് സഹിക്കാൻ പറ്റാത്ത അത്രയും ശ്വാസം മുട്ടിക്കുന്ന ചൂട് പണ്ടത്തെ വെയിലെന്നു പറഞ്ഞാല് ഒരു സിമ്പിൾ ചൂട് മാത്രമായിരുന്നു ഇപ്പോള് അങ്ങനെയല്ല ഭയങ്കര ചൂടും അസ്വസ്ഥതകളും അസുഖങ്ങളുമാണ് കടുത്ത ശൈത്യകാലമെന്നു പറഞ്ഞാല് ഡിസംബറിൽ വരേണ്ട ശൈത്യകാലം ഫെബ്രുവരി ഒക്കെയാണു വരുന്നത് ജൂണിൽ വരേണ്ട മഴ മെയ്യിലേ തുടങ്ങും അല്ലെങ്കില് ഓഗസ്റ്റ് വരെ നീളും അങ്ങനെ അങ്ങനെ പോകുന്നു ചുഴലിക്കാറ്റ് ഇവിടെ പ്രദേശത്തെ ബാധിച്ചിട്ട് ആ ഇടയ്ക്കൊക്കെ ചെറിയ രീതിയില് ബാധിച്ചിട്ടുണ്ട് വലിയ കാര്യമായിട്ടില്ല മഞ്ഞുവീഴ്ച ഇവിടെ ഇല്ലാത്തൊരു കാലാവസ്ഥയാണ് കർഷകർക്കൊക്കെ നഷ്ടം തന്നെയാണ് ഇപ്പോള് ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം കാരണം വല്യ വല്യ കൃഷിപ്പരിപാടികളൊന്നും കർഷകരേൽക്കാറില്ല ഇപ്പോള് കൂടുതലും റബ്ബർ കൃഷി ഉപേക്ഷിച്ചിട്ട് ഇപ്പോള് വേറെ കൃഷികളിലേക്കു തിരിയുന്നു കൈതക്കൃഷിയാണിപ്പോൾ എല്ലാ സ്ഥലമുള്ള വലിയ വലിയ ആൾക്കാര് ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് കൈതക്കൃഷിയാണ് അതിനു കുറേ വിഷമടിച്ച് കുറച്ചു നാള് നട്ടുവച്ചുകഴിയുമ്പോള് പിന്നെയും കുറേനാളെത്തേനു തിരിഞ്ഞുനോക്കേണ്ട പിന്നെ അടുത്ത ട്രിപ്പ് അത് പറിക്കാറകുമ്പോള് വന്ന് സ്പ്രേ ചെയ്തിട്ടു പോവും അതുകഴിഞ്ഞു പിന്നെയും വരും അതുകഴിഞതു പറിച്ചുകൊണ്ടുപോവും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴുള്ള കൃഷിക്കാര് കൃഷിയെ ആശ്രയിക്കുന്നത് ഇപ്പോള് കൃഷി ആശ്രയിക്കുന്നവരായിട്ട് ആരുമില്ല കൃഷിയൊക്കെ വിഷമടിച്ചു ചെയ്യാൻ ഇത്രയും വിലകൂടിയ വളമൊക്കെ ഉപയോഗിക്കേണ്ടതുകൊണ്ട് ആർക്കും അതു മെനക്കടാനോ ഈ കാലാവസ്ഥകൊണ്ടു നഷ്ടം വരുത്തുന്നതുകൊണ്ടോ ആർക്കും ഒരു താല്പര്യവും ഇല്ല എല്ലാരും ഇപ്പോള് വെളിയില്നിന്ന് ആഹാരവും ഫുഡും പച്ചക്കറികളുമൊക്കെ വാങ്ങിച്ചുപയോഗിച്ചു കഴിക്കുന്നു അതു തന്നെയാണു ശരീരത്തിന് ഏറ്റവും ദോഷകരമായിട്ടു ബാധിക്കുന്നത് പിന്നെ ഉള്ളതു മലയാളികള് പച്ചക്കറികളെല്ലാം തമിഴ്നാടിനെ ആശ്രയിക്കുന്നു അവര് വിഷമടിച്ചു കൃഷി എല്ലാ ദിവസവും ഇവിടുന്നു വെള്ളം കേരളത്തില്നിന്ന് ഡാം വഴി ഉപയോഗിക്കുന്ന വെള്ളംവച്ച് അവര് മെനക്കെട്ടു പണിയെടുക്കുകയാണ് അവർക്ക് ഇന്നും കൃഷി ചെയ്യുന്നതിനോ പിന്നെ നല്ല ക കഷ്ടപ്പെട്ടു സഹിച്ചു പണിയെടുക്കുന്നതിനു വെയില് കൊള്ളുന്നതിനവർക്കൊരു മടിയില്ലാത്തതുകൊണ്ടും കേരളത്തിലുള്ളവർക്ക് വെൽ എജ്യൂക്കേറ്റഡിനു മാത്രം താല്പര്യം ഉള്ളതു കൊണ്ടും അവരിതിനു മെനക്കടാറില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണു കാലാവസ്ഥാ വ്യതിയാനത്തെ ബാധിക്കുന്നതൊക്കെ താങ്ക്യൂ